ഇപ്പോൾ ഏ എൻ്റെ പ്രദേശത്തെ ഗതാഗത മാർഗ്ഗങ്ങൾ സാധാരണ ഇപ്പോൾ ഞാൻ എൻ്റെ സ്ഥലത്തെന്ന് പറയുമ്പോൾ ട്രെയിന് പ്ലെയിന് അങ്ങനത്തെ സാനങ്ങളൊന്നും ഇല്ല കാരണം വയനാട്ടിൽ അങ്ങനത്തെ സാനങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല പിന്നെ ബസ് പിന്നെ കാറ് ടാക്സികൾ ഓട്ടോ ബാ പിന്നെ ടുവീലറുകൾ അങ്ങനത്തെയൊക്കെയാണ് ഗതാഗത മാർഗത്തിനായിട്ട് ഇപ്പോൾ കൂടുതലും യൂസ് ചെയ്യുന്നത് കൂടുതൽ ആൾക്കാരും ബസ്സന്നെയാണ് ആശ്രയിക്കുന്നത് അവർക്കൊക്കെ എന്താപറയാ അപ്പോൾ ഇപ്പമൊരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്കൊക്കെ പോകാനാണെങ്കിൽത്തന്നെ അവർ ബസ്സുകളാണ് കൂടുതലും തിരഞ്ഞെടുക്കുന്നത് വായനാട്ടിലേക്കിപ്പോൾ ഉയരം കൂടിയ സ്ഥലമായത് കൊണ്ട് റെയിൽവേ പോലത്തെ സാധനങ്ങളൊന്നും ഇതുവരെ എത്തിയിട്ടില്ല പ്രാബല്യത്തിൽ വരുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതുവരെ വയനാട്ടിലേക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും എത്തീട്ടില്ല കൂടുതൽ ആൾക്കാരും സ്വന്തം വാഹനം തന്നെയാണ് ചെ എന്താപറയാ യാത്ര ചെയ്യാനൊക്കെ കൂടുതലായിട്ടും തിരഞ്ഞെടുക്കുന്നത് അവർക്ക് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ കൂടുതലും സേഫ്റ്റി സേഫായിട്ട് ഈ കൊറോണയുടെ സീസണിലൊക്കേന്ന് പറയുമ്പോൾ പുറത്തിപ്പോൾ ബസ്സായാലും ഓട്ടോ ആയാലും അങ്ങനത്തെ വണ്ടികളിലൊക്കെ പോകാൻ ബുദ്ധിമുട്ടായിരുന്നത് കൊണ്ട് അവർ കൂടുതലും ആൾക്കാരും ഇപ്പോൾ എന്തപറയാ സ്വന്തമായിട്ട് വാഹനങ്ങൾ വാങ്ങുകയും പിന്നെ പുറമേയൊക്കെ പോകാനൊക്കെ അവരങ്ങനെ ഇതാകുഒക്കെ ആയിരുന്നു ചെയ്തോണ്ടിരുന്നത് അപ്പോൾ കൂടുതലാൾക്കാരും എന്തപറയാ ഇപ്പോൾ കാറുള്ളവരൊക്കെ കാറിലും ബൈക്കുള്ളവർ ബൈക്കിലും പിന്നെ ഓട്ടോ ബസ് അങ്ങനെ ടു വീലർ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ടും യാത്ര ചെയ്യുന്നത് ഇങ്ങനൊക്കെയാണ് എൻ്റെ പ്രദേശത്തെ അതായത് വയനാട്ടിലെ കൂടുതലായിട്ടും ഗതാഗത മാർഗങ്ങൾ കണ്ടുവരുന്നത്